ഞാനിതുവരെ അങ്ങനത്തൊരു സമ്മാനം കൊടുത്തിട്ടില്ല ബട്ട് ഫ്യൂച്ചറിൽ എനിക്ക് നല്ല ആഗ്രഹമുണ്ടങ്ങനത്തെ ഒരു സമ്മാനം കൊടുക്കണം എന്ന് സോ ഞാൻ നന്നായി വരയ്ക്കുന്ന ഒരു വ്യക്തിയാണ് ഞാന് ഞാൻ നമ്മൾ കൈകൊണ്ട് വരയ്ക്കുന്ന സമ്മാനം സമ്മാനം കൊടുക്കുമ്പോൾ നല്ലൊരു ഇതായിരിക്കും അത്രേം വാല്യൂ അവരൊരു ആ സമ്മാനത്തിൽ അവരപ്പോൾ സൂക്ഷിച്ചു വെക്കും നമ്മള് മേടിക്കണതിനെക്കാട്ടിളും നമ്മള് കൈകൊണ്ട് വരച്ചൊരു സംഭവം കൊടുക്കുക പറഞ്ഞാൽ അതിനെ ഇതിനേക്കാട്ടിലൊരു വലിയൊരു സമ്മാനം വേറെ എവിടെയും ആർക്കും ഒന്നും ഒന്നുണ്ടാവില്ല കൊടുക്കാൻ നമ്മളത്രേയും നമ്മളുടെ ഫുൾ എഫേർട്ട് ചെയ്യിട്ടായിരിക്കും നമ്മള് കൊടുക്കുന്നുണ്ടാവുക അത് ആ അത് കാരണം അത്രയും മൂല്യമായിരിക്കും ആ സമ്മാനത്തിന് നമ്മൾ കൊടുക്കുക ആ നമ്മള് കൊടുക്കണ സമ്മാനത്തിന്